ഹലോ ഹലോ ഇത് കൂടൽ അക്ഷയായിരുന്നോ കൂടൽ നമ്മുടെ അക്ഷയ സെൻ്റെർ അപ്പം അതേ എനിക്ക് ഒരു എനിക്കൊരാധാറ് അപ്ഡേറ്റ് എടുക്കാനായിരുന്നു അതായത് എനിക്ക് ആധാറുണ്ട് പക്ഷേ അതെനിക്കത് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ എന്തൊക്ക ഫോം അതായത് എന്തൊക്കെ ഇത് വേണം എന്തൊക്കെ മാനദണ്ഡങ്ങൾ വേണം ഇപ്പം പത്താം ക്ലാസ്സിൻ്റെ കോപ്പി പിന്നെ പ്ലസ് ടൂ വിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണോ അത് നിർബന്ധമുണ്ടോ ഫോട്ടോ എത്ര എണ്ണം വേണം ഒര് ഒര് രണ്ട് ഫോട്ടോയും പിന്നെ ബാക്കി ഞാനിപ്പം ഇവിടെ അല്ല പഠിക്കുന്നത് ഞാൻ കോതമംഗലത്താണ് പഠിക്കുന്നത് അപ്പം എനിക്കങ്ങോട്ട് ഇത് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുവോ ഇങ്ങനെ അതോ ഞാനവിടെത്തന്നെ വരണോ നിങ്ങളുടെ ഈ അക്ഷയ സെൻ്ററിൽ വന്നിരുന്ന് ചെയ്യണോ അപ്പം അതിൻ്റെ പേപ്പർ വർക്കൊക്കെ എങ്ങനെ ആണ് കാര്യങ്ങൾ ഒക്കെ അതുപോലെ തന്നെ ഇപ്പം ഇത് എത്ര വരും പേയ്മെൻ്റ് ഈ നമ്മൾ എനിക്കിപ്പം ഈ ആധാർ കാർഡ് പുതുക്കാനാണോ അപ്ഡേറ്റും ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം ഇപ്പം എനിക്കിപ്പം ഓൾറെഡി പത്തൊമ്പത് വയസ്സുണ്ട് അപ്പം ഞാനത് ചെയ്യാൻ മറന്ന് പോയി അപ്പം ഇത് എനിക്കെടുക്കണം അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് പിന്നെ ഇപ്പം ആധാറിൻ്റെ കോപ്പി വേണോന്ന് ആധാറിൻ്റെ എത്ര കോപ്പി വേണമെന്ന് ഒന്ന് പറയാവോ പിന്നെ നിങ്ങളുടെ നമ്പർ ഒന്ന് തരണം കേട്ടോ നിങ്ങൾ നമ്പർ ഒന്ന് തരണം എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാനായിരുന്നു